ഹലോ ആ ഞാൻ എറണാകുളത്തുനിന്ന് വിളിക്കുന്നതായിരുന്നു വായനാടിലേക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആയിരുന്നു അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടിഷൻ എങ്ങനെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു അവൈലബിൾ ആണ് ആ ഓക്കെ ഓക്കെ ആ ആ ആ സർ ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ കയറുന്നില്ലേ നമുക്ക് ഇപ്പോൾ നടന്ന് ആണോ വണ്ടിയിലാണോ എങ്ങനെയാണ് കയറുന്നത് ആ ഓക്കെ ഓക്കെ അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ആ വണ്ടിയിൽ പോകുമ്പോഴും എക്സ്പെൻസ് തരണം അവിടെ കയറണമെങ്കിലും എക്സ്പെൻസ് വേണം അല്ലേ റെഡി കാഷ് വേണം തരൂളളൂ ഒരാൾക്ക് അല്ലേ ഒരാൾക്ക് ഞങ്ങൾ കുറച്ച് പേർ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് പേർ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ അപ്പോൾ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഒക്കെയോ അറേഞ്ച് ചെയ്ത് തരും ആ ഓക്കെ ആ ഫുഡിൻ്റെ കാര്യം കുടെ ഒന്ന് നോക്കണം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് അവിടെ അറിയാത്ത ഒരു സ്ഥലം ആണ് അപ്പം വേറെ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ എപ്പോഴാണ് മറ്റന്നാൾ ഞങ്ങൾ വരുവായിരുന്നു രാവിലെ നമ്മളെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുവോ ഞങ്ങൾ ഇവിടുന്ന് ബസിലാണ് വരിക ബസിൽ ആണ് വരിക കൽപ്പറ്റയാണ് ഞാൻ ഇറങ്ങുന്നത് കൽപ്പറ്റയ്ക്കാണ് ഞാൻ എന്താണ് പറയുക ബസിന് ബുക്ക് ചെയ്തത് ആ രാവിലെ ഞങ്ങൾക്ക് ഒരു ആ എട്ട് മണി ആകുമ്പോഴത്തേക്കും ബസ് അവിടെ എത്തും എന്നാണ് പറഞ്ഞത്

അൻ ആ ആ പത്ത് പേരൊന്നും അല്ല അഞ്ച് പേര് ഒരു ഒരു ചെറിയ ഒരു വണ്ടി മതി വലിയ വണ്ടി ഒന്നും വേണ്ട ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ ഒന്ന് പറഞ്ഞ് വിട്ടേക്ക് ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ